രണ്ട് രണ്ട് ദിവസായി അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് കൊറോണ ആയിരുന്നു അപ്പോൾ നമ്മൾ അതറിയാണ്ട് അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവര് നോക്കിയപ്പോൾ അവർക്ക് പോസിറ്റീവായി അപ്പോളത്തേക്കും പിന്നെ എനിക്കും പനിയായി അപ്പോൾ അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് അസ്വസ്ഥതകൾ മേല് വേദന ഉണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു

വീട്ടിൽ അമ്മ ഉണ്ട് അച്ഛനുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഒരു മോനുണ്ട് അമ്മയ്ക്കും അച്ഛനും അമ്പതിന് മുകളിൽ പ്രായമുണ്ട് അ മോൻ എട്ട് മാസം

അതെ അതെ അ അ നിർത്ത് അ തന്നിട്ടുണ്ടായിരുന്നു ഓ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ കൊണ്ട് തന്നായിരുന്നു അ രണ്ട് വാക്സിനും എടുത്തതാണ്

ഓക്കേ ഓക്കേ മാം